ഓ എന്തുണ്ട് ഞാനാ ആ ഞാനാ സൂപ്പർവൈസറാ ആ ഇപ്പോൾ എവിടെയാ ആ ഞാൻ രാവിലെ അവിടെ വന്നായിരുന്നു കണ്ടില്ല ആ അത് നമ്മുടെ വർക്കേർസിന്റെ അടുത്ത് നിന്ന് ഒന്ന് മാറി നില്ല് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിക്കട്ടെ ആ അതെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നന്നായിട്ട് പോകുന്നുണ്ടോ നമുക്കൊരു ഡേയ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഡേയ്റ്റിന് അനുസരിച്ച് പണി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് അറിയണം മ്മ് മ്മ് മ്മ് അവിടെ വരെയുള്ളോ ഓക്കെ അത് ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം അത് പോലെ നമ്മുടെ എല്ലാവർക്കും സേഫ്റ്റി ഇട്ടിട്ട് പണി ചെയ്യാൻ പറയണം അത് പ്രധാനമായിട്ടും നോക്കിയോണം സേഫ്റ്റിയും കാര്യങ്ങളും ഇട്ട് ഓക്കെ ഇപ്പം വേണ്ട എക്യുപ്മെന്റ്സും പിന്നെ ബാക്കി സിമന്റ് കമ്പി അതിനകത്തൊന്നും കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടല്ലോ അവിടെ കമ്പി ഇട്ടത് പിന്നെയും പൊട്ടി പോയെന്നോ അതിനെന്താ പ്രശ്നം ഓക്കേ മോളിൽ ഇഷ്ടികയ്ക്കും എന്തോ പ്രശ്നം പറയുന്നത് കേട്ടു ഇഷ്ടികയൊക്കെ പൊട്ടി പൊട്ടി പോകുന്നു എന്ന് ഓക്കെ താഴത്ത് അത്രയും ഒന്ന് പാ നൂറ്റി ഇരുപത് സ്ക്വേയർ ഫീറ്റ് ആണ് അവർ പറയുന്നത് അത് മൊത്തം തീർത്തായിരുന്നോ ഇനിയും ഉണ്ടോ ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് വേഗം ആക്കിക്ക് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ നിങ്ങൾക്കും അറിയാലോ നിങ്ങളും ഇതിൽ എന്റെ കൂടെ ആദ്യമായിട്ടൊന്നും ജോലി ചെയ്യുന്നവർ അല്ലല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് തീർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ട കാര്യം എന്താണ് വെച്ചാൽ നമ്മൾ അത് ശരിയാക്കി തരാം ഓ ഓക്കെ അത് ശരിയാക്കി തരാം നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നാളെ വരുമ്പം അവിടെ കാണണം ഞാൻ നാളെ വന്ന് ഞാൻ മെയിൻ ഒരു എൻജിനിയർ കൂടെ വരുന്നുണ്ട് അപ്പോൾ ആളുകൂടെ വന്നിട്ട് ഒന്ന് മൊത്തത്തിൽ ഇപ്പോൾ ഇത്രയും പണി നടന്നില്ലേ അപ്പോൾ അതിന്റെ മൊത്തം ഒന്ന് നോക്കും അവർ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം അപ്പോൾ എന്തെങ്കിലും വേണ്ടത് ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അറേഞ്ച് ചെയ്ത് സൈറ്റിൽ ഇറക്കി തരാം ഇനിയും വേണോ രണ്ടെണ്ണം ഓക്കെ ഓക്കെ അപ്പോൾ എന്നാൽ ഇന്ന് തന്നെ അറേഞ്ച് ചെയ്യാം രണ്ട് മെഷിൻ നമ്മുടെ വേറെ ഒരു സൈറ്റിൽ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് ഇറക്കാം ഇന്ന് തന്നെ എന്താ ആയാൾക്കെന്തു പറ്റി അല്ല നമ്മൾ രാവിലെ അറേഞ്ച് ചെയ്ത് പുറത്തുനിന്ന് അല്ലേ അതല്ലേ ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടത്തേക്കും ഉള്ളത് അല്ലേ നിങ്ങൾ രാവിലെ നൈറ്റ് കുക്ക് ചെയ്യുന്നത് ആ അതെ അതെ ആ എന്നാൽ ശരി ഞാൻ അവർക്കുള്ളത് ഒരു കാര്യം ചെയ്യാം ഞാൻ അവർക്ക് അവരിപ്പോൾ എന്തായാലും ഫ്രിഡ്ജ് ഉണ്ടല്ലോ അപ്പോൾ രണ്ടു മൂന്നു ദിവസത്തേക്കുള്ള പച്ചക്കറി ഞാൻ എന്തെങ്കിലും അറേഞ്ച് ചെയ്തുതരാം അതും പിന്നെ ബാക്കി നോർമൽ സ്റ്റവും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് അറേഞ്ച് ചെയ്തുതരാം അതിലൊന്ന് ചെയ്യ് ആ എക്യുപ്മെന്റ് ഞാൻ എത്തിച്ചേക്കാം

ഓക്കെ എന്നാൽ നാളെത്തന്നെ അത് ഞാൻ ഒരു അഞ്ചാറ് അറേഞ്ച് ചെയ്ത് കൊണ്ട് ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സൈറ്റിൽ നാളെ നമ്മുടെ എൻജിനിയർ വരുമ്പോൾ എല്ലാം നല്ല രീതിയിൽ പോവണം ആ ഇന്ന് എത്തിക്കാം ഇന്ന് എത്തിക്കാം ഞാൻ